ഹലോ ഹലോ അതേ സാർ ആ ആരാണ് സാർ ആ എന്താണ് സാർ ഓ സോറി സാർ ഞാൻ മറന്ന് പോയായിരുന്നു അത് ആ അതിൻ്റെ എന്തൊക്കെ ഡോക്യൂമെൻറ്റ് വേണം സാറേ ഞാൻ മറന്ന് പോയി എക്സ്പെയറായല്ലേ ആ സമയമുണ്ട് കുഴപ്പമില്ല ആ ഇല്ല കുഴപ്പമില്ല സംസാരിക്കാം സംസാരിക്കാം കുഴപ്പമില്ല സാർ അത് എക്സ്പേറായ വിവരം ഞാൻ അത് ശരി ആ ആ ആ ആ അത് ശരി ആ ആ അതിലൽ ഞാൻ എന്ത് എന്തൊക്കെയാണ് സാറേ അതിൻ്റെ ഡോക്കുമെൻറ്റ് എന്തൊക്കെയാണ് വേണ്ടിയത് പഴയ ലൈസൻസും ആധാർ കാർഡും അതോ പഴയ ലൈസൻസ് മാത്രം മതിയോ ഫോമുവെല്ലാം ഫില്ല ചെയ്ത് തരാനോ

അതെ അതെ അതെ അതെ അതെ അതെ ആ ആ ആ ആ ആ ആ അത് ശരി ആ ആ ആ ആ ഓ ഓ അറിയാം സാർ ഞാൻ പുതിയ ബുക്ക് ഓ എൻ്റെ കയ്യിലുണ്ട് അത് ഞാൻ പഠിച്ചോളാം പിന്നെ ആ ആ തന്ന ടെസ്റ്റിംഗ് സർക്കാര് ഡോക്ടഴ്സിൻ്റെ ഡോക്ടറുടെ വേണമല്ലേ ആ അതിന് ശേഷമാണ് ഞാൻ നേരത്തേ എടുത്ത അതിന് ശേഷമാണ് കണ്ണാടി വെച്ചത് ആ അതെ ആ ആ ആ ആ ആ നോക്കി സർട്ടിഫിക്കറ്റ് ഞാൻ കൊണ്ട് ഹാജരാക്കാം സാറേ ആ ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട് ഇവിടത്തന്നെ ഉണ്ട് ആ ആ ആ ഓക്കേ ഓക്കേ എന്നാൽ ചെയ്യാം ചെയ്തു കൊള്ളാം അങ്ങനെ നോക്കാം ആ ഓൺലൈൻ ആ ഞങ്ങൾ ചെയ്യാം ആ ചെയ്തോളാം ചെയ്ത് തരാം സാർ അത് ഓക്കേ ഓക്കേ താങ്ക് യൂ സാർ താങ്ക് യൂ താങ്ക് യൂ ഓക്കേ വെൽക്കം